അതെ പറയൂ

ആ പറയൂ

എ ഐ സിയിൽ കൂടാൻ താത്പര്യം ഒക്കെയുണ്ട് പക്ഷേ കുറിയും ലോണുകളൊക്കെയുണ്ട് ഞാൻ ഞാ ഞാൻ നോക്കട്ടെ നോക്കിയിട്ട് പറയാം കുറീ രണ്ട് വർഷം ആകാൻ ആയീക്കണ് മൂന്ന് വർഷമായി ലോണും ലോണും കാര്യമൊക്കെ ഉണ്ട് കുറിക്ക് ഒരു പത്ത് പത്ത് മൂവായിരം വെച്ച് വെച്ചിട്ട് അടക്കുന്നുണ്ട് അതെ ആ ഞാനെന്നാൽ മക്കളോടൊക്കെ ചോ ഞാൻ കുട്ടികളോടൊക്കെ ചോദിച്ചിട്ട് എന്താ വെച്ചെങ്കിൽ വിവരം പറയാം കൂടാനൊക്കെ താത്പര്യം ഉണ്ട് മോൻ മോൻ ഹോസ്പ്പിറ്റലിലാണ് ഇപ്പം ഇല്ല അവിടെയൊന്നും കൂടിയിട്ടൊന്നും ഇല്ല അതേ ആ അതേ ഞാ മോൻ ഞാൻ മോൻ വന്നിട്ട് ചോ മോൻ ആ ഞാൻ മോൻ വന്നിട്ട് ചോദിച്ചിട്ട് അതിൻ്റെ ആൻസർ പറയാം അതെ ഞാൻ ആ ഞാൻ ചോദിച്ചിട്ട് പറയാം ആ ഞാൻ ചോദിച്ചിട്ട് പറയാം കൂടാനൊക്കെ താത്പര്യമുണ്ട് പക്ഷെ ഇതുകൊണ്ടാണ് കുറച്ച് ടൈറ്റിങ്ങിലാണ്

ഉം ആ കിട്ടും കിട്ടും

ശരി ശരി ആ ഞാൻ ന്നെ ഞാൻ മോനോട് ചോദിച്ചു നോക്കട്ടെ എന്നിട്ട് ഞാൻ പറയാം ഉം